സ്റ്റാമ്പുകൾ നമ്മളിങ്ങനെ ആൽബത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് ആൽബത്തിൽ ഒട്ടിച്ച് ഇങ്ങനെ ബുക്ക് ബുക്ക് അങ്ങനെ ഇതിലൊക്കെ ഒട്ടിച്ച് അങ്ങനെ നല്ല പല പല സ്റ്റാമ്പുകൾ നമ്മൾ പണ്ടൊക്കെ സൂക്ഷിച്ചിരുന്നു പക്ഷെ ഇപ്പം എങ്ങനെ സ്റ്റാമ്പുകള് അങ്ങനെ നമ്മുക്ക് അങ്ങനെ ഉപയോഗിക്കുന്നില്ല പക്ഷെ നമ്മൾ പണ്ട് കാലത്ത് ഇങ്ങനെ നന്നായിട്ട് സ്റ്റാമ്പുകൾ ഒക്കെ നല്ലപോലെ ബുക്കേലൊക്കെ നിറച്ച് ഒട്ടിച്ച് നല്ല പല പല പല സാധനങ്ങൾ പല പല സ്റ്റാമ്പുകൾ നമ്മൾ നല്ല വൃത്തിക്ക് ഒട്ടിച്ച് നല്ല ഇതായിട്ട് നമ്മൾ നമുക്കത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഒരു ഭംഗിയും നമുക്കത് കാണുമ്പോൾ നമുക്കൊരു രസം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ പണ്ടത്തെ ഇതാണ് പക്ഷേ ഇപ്പം അങ്ങനെ ഒന്നും അങ്ങനെ കൂടുതലായിട്ടൊന്നും നമുക്കങ്ങനെ കാണാൻ സാധിക്കുന്നില്ല പിന്നെ നാണയങ്ങൾ നാണയങ്ങൾ നമ്മൾ നമ്മളെ പഴയ പഴയ തുട്ട് തുട്ടുകൾ നാണയത്തുട്ടുകൾ നമ്മൾ നാണയത്തുട്ടുകൾ നമ്മൾ നമ്മൾ മേശയ്ക്കകത്തുനിന്ന് നമ്മൾ നമ്മുടെ കുടുക്ക കുടുക്ക കുടുക്ക കുടുക്കയ്ക്കകത്ത് കുടുക്ക കുടുക്കയ്ക്കകത്ത് നമ്മൾ നമ്മൾ പല പല പല കോയിനുകൾ നാണയങ്ങൾ നമ്മൾ ഇട്ട് ശേഖരിച്ച് വെക്കുന്ന ശേഖരിച്ച് വെക്കാറുണ്ട് നാണയങ്ങൾ പിന്നെ പല പല പിന്നെ കല്ലുകൾ പല പല നല്ല നല്ല ഭംഗിയുള്ള നല്ല കല്ലുകൾ നമ്മൾ ശേഖരിച്ച് നമ്മുട ഷോക്കേസിൽ നമ്മൾ നല്ല ഭംഗിയായിട്ട് നമ്മളത് ഷോക്കേസിലൊക്കെ ഷോക്കേസിൽ നല്ല നല്ല പല നല്ല നല്ല നല്ല ഭംഗിയുള്ള കല്ലുകൾ പല പല സൈസ് കല്ലുകൾ നമ്മൾ ഷോക്കേസില് കളർ ചെയ്തും അങ്ങനെ ഡിസൈൻസ് ഒക്കെ ഡിസൈൻ ഒക്കെ ചെയ്തു നന്നായിട്ട് സൂക്ഷിച്ച് നശിച്ചു പോകാതെ നമുക്ക് കാണാനായിട്ട് നമ്മളതൊക്കെ പല പല ഇതായിട്ട് സൂക്ഷിച്ച് വയ്ക്കാറുണ്ട് അപ്പം നന്നായിട്ട് സൂക്ഷിച്ച് ചെയ്ത് വയ്ക്കാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പഴയ പഴയ സാധനങ്ങളൊക്കെ നല്ല രീതി പഴയ സ്റ്റാമ്പുകളും നാണയങ്ങളും അങ്ങനെ എല്ലാ സാനങ്ങളും നമ്മൾ സൂഷിച്ച് വെക്കുന്നു വളരെ നന്നായിട്ട്